എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ആണ് ഞാൻ ക്യാമറ മേടിച്ചത് പിന്നെ ബാംഗ്ളൂർ പോയപ്പോൾ ആണ് അതായത് ബാംഗ്ളൂർ എൻ്റെ അച്ഛൻ പോയപ്പോൾ മേടിച്ചു കൊണ്ട് വന്നതാണ് ക്യാമറ എനിക്ക് പണ്ടേ ഫോട്ടോ എടുക്കാനും ഒരു ക്രെയ്സ് ഉള്ളത് കൊണ്ട് അച്ഛൻ സർപ്രൈസ് ആയിട്ട് കൊണ്ട് തന്നതാണ് അപ്പം വളരെ സന്തോഷം ആയി നല്ല അടിപൊളി ക്യാമറ ആണ് വലിയ കുഴപ്പം ഒന്നുമില്ല നല്ല വർക്കിംഗ് ഒക്കെ ആണ് നമുക്ക് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ ഏത് ഒരു രിതിയിൽ ഫോട്ടോ എടുക്കണം എന്ന് വെച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് നല്ല അടിപൊളി ആയിട്ട് കിട്ടും അപ്പം ഞാൻ ഇത്രയും ഒന്നും പ്രതിഷിച്ചിട്ട് ഉണ്ടായിരുന്നില്ല ക്യാററേൻ്റെ റേറ്റ് ഒരു സെവൻറ്റീ തൗസന്റ് എബവ് ആയി എന്നാണ് പറഞ്ഞത് അതിന് ഉള്ള പെർഫോമൻസും കാര്യങ്ങൾ ഒക്കെ ക്യാമറക്ക് ഉണ്ട് കാരണം നമുക്ക് നല്ല വിഡിയോ ഒക്കെ എടുക്കാൻ സ്ലോ മോഷൻ ആയിട്ട് അല്ലാണ്ടും അങ്ങനത്തെ വിഡിയോ ആയിട്ട് ആണെങ്കിലും നമുക്ക് അടിപൊളി ആയിട്ട് എടുക്കാം ഫോട്ടോ ആണെങ്കിൽ നല്ല അടിപൊളി നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോലും അതായത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല അത്രക്കും നല്ല ഫോട്ടോ എഫക്റ്റ് ആണ് എഫക്റ്റും കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ട് അതു കൊണ്ടു തന്നെ നമുക്ക് അതായത് നമുക്ക് ബേക്കിൽ ബ്ലർ ആക്കി എടുക്കാനും എല്ലാറ്റിനും നമുക്ക് പറ്റും നല്ല അടിപൊളി ക്യാമറ ആണ് നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ് ഈ ക്യാമറയിൽ ഉള്ളത്